സാധാ തീയിൽ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുംകൂടി കഷ്ടപ്പാട് ഉള്ളത് ആണ് സാധാ തീയിൽ നമ്മൾ പാചകം ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ വിറകെടുത്ത് കത്തിച്ച് അതിലിട്ട് തീ കത്തി അങ്ങനെയൊക്കെ ചെയ്യുന്നത് ടൈം എടുക്കും പക്ഷെ നമ്മൾക്ക് നമ്മുടെ ചിലവ് കുറവായിരിക്കും പക്ഷെ ഗ്യാസിലേക്ക് വരുമ്പോൾ പണി കുറവായിരിക്കും ചിലവ് കൂടുതലായിരിക്കും പണി ഈ ടാപ്പ് ഒരു ടാപ്പിൽ തീ കത്തിക്കിട്ടും പക്ഷെ ഇതിന് ഇത്ര പൈസ കൊടുത്താൽ മാത്രമേ ഈ ഗ്യാസ് ലഭിക്കുകയുള്ളു